ഞാൻ ഇടുക്കി ജില്ലയിലാണ് താമസിക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഇവിടെ ഒത്തിരി അഞ്ചിൽ അധികം പലചരക്ക് കടകൾ ഉണ്ട് അവിടെ എല്ലാവിധ സാധനങ്ങളും ലഭിക്കാറുണ്ട് അരി മുതൽ പച്ചക്കറികൾ വരെ എല്ലാം വിലക്കുറവിലും കിട്ടുന്ന സ്ഥാപനങ്ങളും സാധനങ്ങളും ഉണ്ട് വില കൂടുതലായി കിട്ടുന്ന സാധനങ്ങളും ഉണ്ട് വില കൂടുതലായി കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ വില പേശുകയും വില പേശി സാധനം മേടിക്കാറുണ്ട് വില പേശി സാധനം മേടിക്കുമ്പോൾ നല്ല സാധനം തന്നെ നോക്കി എടുക്കാനും ശ്രമിക്കാറുണ്ട് എങ്കിലും ചില കടകൾ വില പേശി കഴിയുമ്പോൾ സാധനം തരാതിരിക്കുകയും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടകളിൽ പോയി സാധനം മേടിച്ചോളാൻ പറയുകയും ചെയ്യാറുണ്ട്

ഞങ്ങളെ വില പേശി സാധനം മേടിക്കുകയാണെങ്കിൽ പോലും കടകളിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ പരമാവധി പൈസ കൊടുത്ത് മേടിക്കാറുമുണ്ട് എങ്കിലും ചില കടകളിൽ നിന്ന് ഇവിടെ പരിചയമുള്ള കടകളിൽ നിന്ന് പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധനം മേടിക്കുകയും പിന്നീട് പൈസ കൊടുത്ത് ആണ് ഞങ്ങൾ സാധനം മേടിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ലാഭം ലഭിക്കാറുണ്ട് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക കടകളിൽ നിന്നും ഞങ്ങൾ സാധനങ്ങൾ മാറി മാറി മേടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പല കടകളിൽ നിന്നും പ്രോഫിറ്റ് ഞങ്ങൾക്ക് തരുന്നുമുണ്ട് അത് ഞങ്ങൾക്ക് കൂടുതൽ എസ്പീരിയൻസ് നൽകുന്നുണ്ട്